ആ പറഞ്ഞോളു ആ അതെ ആ അതെ അഭിഷേകാണ് ആ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണോ അ ആ ഇപ്പോൾ എന്താ പറ്റിയത് എന്നിട്ട് സ്കാനിങ്ങ് ആ സ്കാനിങ്ങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനാണെങ്കിൽ സ്കാനിങ്ങിലപ്പം അപ്പം നമുക്ക് എംആർഐയോ കാര്യങ്ങളോ എന്നാ എടുത്ത് നോക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും വേറയിന്റുള്ളിലേക്ക് സ്ക്രാചോ എന്തേലും ഉണ്ടോന്നൊള്ളത് നമുക്കൊന്നൂടെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേദനയും കാര്യങ്ങളൊക്കെ കൊറയ്ന്നില്ലാത്തകൊണ്ട് നീര് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ കൈക്ക് നീര് ഇറങ്ങീട്ടില്ലാല്ലേ അങ്ങനയാണെൽ നമക്കൊന്നു കൂടി നമക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഒന്നുകൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്കാനിങ്ങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തേലും സക്റാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞരമ്പിനെന്തേലും ചതവോ കാര്യങ്ങളോ അങ്ങനെന്തേലും ഉണ്ടോന്നുള്ളത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം മുറിവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അ ആ നമ്മക്കങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ടെങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് ആതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കാര്യങ്ങള് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കീട്ട് മൊത്തത്തിലെന്തെങ്കിലും സ്കാനിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം മൊത്തത്തിൽ നമുക്ക് എന്തൊക്കെയാ ഉള്ളത് എന്തേലും എന്തേലും ഫ്രാക്ച്ചറോ കാര്യങ്ങളോ അങ്ങനെന്തേലും ഉണ്ടോ ചതവോ അതിൻ്റെ എന്തേലും ആയിരിക്കണം ഒന്നൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചുറീസോ കാര്യങ്ങളോ എന്താ ഉള്ളതെന്നൊക്കെ നോക്കീട്ട് നമുക്കതിനനുസരിച്ച് ബാക്കി ട്രീറ്റ്മെന്റ് കാര്യങ്ങള് ചെയ്യുന്നെയാണെൽ ചെയ്യാം നാളെ തന്നെ ചെയ്തോ വെച്ച് വൈകിപ്പിക്കാൻ നിൽക്കണ്ട ആ കണ്ടിന്യൂ ചെയ്തോ ഇപ്പം നാളെ വരേ ഇനി വെയ്റ്റ് ചെയ്യണ്ടേ നാളത്തേക്കല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുക അപ്പം നമുക്ക് വരുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്തോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നത്തേക്ക് മാറ്റിയിട്ട് ഇതാക്കാം നമുക്കിത് കാര്യങ്ങൾ എന്താ ഇങ്ങനെയാന്നുള്ളത് ഏർലി മോണിങ്ങ് തന്നെ ഒര് പത്ത് മണി ആകുമ്പത്തേക്കും എത്താൻ പാകത്തിന് പോര് നമുക്ക് സ്കാനിങ്ങ് കാര്യങ്ങളൊക്കെ പത്ത് മണിയാകുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ നമ്മ ആ ടൈമില് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം നമക്ക് എന്തേലും കുഴപ്പം എന്തേലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാ അതിനനുസരിച്ച് ബാക്കി പോസിബിലിറ്റീസും കാര്യങ്ങളും നോക്കീട്ട് നമുക്കയിനനുസരിച്ച് ചെയ്യാം അത് സ്കാനിങ്ങിന് ഓരോന്നിനും റേറ്റിങ്ങ് ഡിഫറെൻസാണ് വെരുന്നത് അത് എവടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സുമാര് അതിനെ കുറിച്ച് ഡീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും എത്രയാ വരുന്നതെന്നുള്ളത് എറൗണ്ടൊരു ഒരു എംആർഐക്ക് വെരുന്നത് നാലായിരത്തി സമ്തിങ്ങ് എത്രയോ ആണ് വരുന്നത് ആ അപ്പം പിന്നേയും ആ ആ അത് ഒന്നും കൂടെ അത് എടക്കൊന്ന് ഡ്രസ്സിങ് വരുന്നത് നമുക്ക് മെഡിസിൻ വെച്ച് ഇതാക്കണ്ടതൊണ്ട് അപ്പം അവ ഇടയ്ക്കൊന്ന് വന്ന് ചെയ്തിട്ട് പോവാം ആ ആ ആ ആ അത് കഴിഞ്ഞ് ഇഫെക്ഷന് ഇഫെക്ഷനും കാര്യങ്ങളൊക്കെ അവാണ്ടിരിക്കാൻ വേണ്ടീട്ടാണ് ഡയറക്റ്റ് ഡ്രെസ്സിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം വന്നിട്ട് അത് ഒന്നുകൂടെ ഡ്രെസ്സിങ്ങ് ചെയ്തത് നമുക്ക് നാളെ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടന്ന് തന്നെ വരാൻ പറ്റുന്നത് യൂഷ്വലി അപ്പോൾ എപ്പത്തേ എപ്പത്തേക്കെത്താൻ പറ്റുവോ അത്രയും പെട്ടെന്ന് വന്നിട്ട് നമക്ക് കാര്യങ്ങള് മൊത്തോന്ന് സെറ്റ് ചെയ്തിട്ട് പൂവാം മൊത്തം റെഡി ആയെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഡിലേ ആക്കാണ്ട് ചെയ്യുന്നതാണ് നല്ലത് ആ നോക്കീട്ട് അങ്ങനെയാണ് ഉള്ളതെങ്കിൽ എപ്പഴ്ത്തേയ്ക്കാന്ന് നോക്കീട്ട് വന്നാ ഇറങ്ങിക്കോളു